എൻ്റെ ഗ്രാമം എനിക്കിഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം ഞാൻ ജനിച്ച് വളർന്നത് ഇവിടെ തന്നെ ആണ് ജനിച്ചു വളർന്ന ഇവിടുന്ന് തന്നെ ആണ് അതുകൊണ്ട് തന്നെ എനിക്കെൻ്റെ ഗ്രാമത്തെ കൂടുതലധികം ഇഷ്ടമാണ് എന്ത്കൊണ്ടതിനെ ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് അറിഞ്ഞുകൂട എൻ്റെ കുട്ടികാലം മുഴുവൻ ഇവിടെ തന്നെ എനിക്കിപ്പം പതിനെട്ട് വയസ്സായിട്ടുള്ളു എൻ്റെ ഒരുപാട് ഓർമ്മകൾ എൻ്റെ മാതാപിതാക്കളുമായുള്ള ഓർമ്മകൾ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയായിട്ടുള്ള ഓർമ്മകൾ എല്ലാം എനിക്ക് ലഭിച്ചത് എൻ്റെ ഗ്രാമത്തിൽ നിന്നാണ് എൻ്റെ ഗ്രാമത്തെ മനോഹരമാക്കുന്നത് ഇവിടെ ഉള്ള ആളുകൾ തന്നെയാണ് കാരണം സ്നേഹംകൊണ്ട് നിറഞ്ഞിരിക്കുന്നവരാണ് ഇവിടെ ഓരോരുത്തരും എന്ത് പ്രശ്നം വന്നാലും അടുത്തുള്ള വീട്ടിലൊന്ന് ഉറക്കെ വിളിച്ചാൽ ഓടി വരുന്ന വിശാല മനസ്സുള്ള ഒരുപാടാളുകൾ എനിക്ക് ചുറ്റുമുണ്ട് ഒന്ന് സിറ്റികളിലൊക്കെ താമസിച്ചാൽ ഉള്ള പ്രധാന പോരായ്മ ഇത് തന്നെയാണ് നമുക്ക് തുറന്ന് സംസാരിക്കാനോ നമ്മുടെ കാര്യങ്ങള് പറയാനോ നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മളെ പരിഗണിക്കാനൊന്നും ആരും ഉണ്ടാവില്ല പക്ഷെ ഗ്രാമങ്ങളിലുള്ള പ്രത്യേകത എന്തെന്ന് വച്ചാൽ നമുക്കൊരാവശ്യം വന്നാൽ ഏത് നിമിഷവും നമ്മളുടെ വിളിപുറത്തുണ്ടാവുന്നവരാണ് നമ്മുടെ അയൽവക്കത്തുള്ളവർ അടുത്തുള്ള അകന്നുള്ള ബന്ധുക്കളെക്കാൾ എപ്പോഴും നല്ലത് അടുത്തുള്ള അയൽവാസികളാണെന്ന് പറയുന്നത് സത്യം തന്നെയാണ് നമുക്ക് എന്തൊരു പ്രതിസന്ധിയിലും നമുക്ക് കൂട്ടായി നമുക്ക് താങ്ങായി തണലായി നിൽക്കാൻ നമ്മുടെ അയൽവാസികൾ മാത്രമേ ഉണ്ടാവുകയുള്ളു അത്കൊണ്ട് തന്നെ എൻ്റെ ഗ്രാമത്തെ മനോഹരമാക്കുന്ന ഈ അയൽപക്കങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് എൻ്റെ ഗ്രാമത്തെ കുറിച്ച് എനിക്ക് ഓർക്കുമ്പോൾ തന്നെ അഭിമാനവും ആഘോഷവും തന്നെയാണ് എന്നെ ഇത്രയും നാളും വളർത്തിയത് എൻ്റെ ഗ്രാമവാണ് എനിക്ക് ഇത്രയും നാളും എൻ്റെ ജീവിതം നയിക്കാൻ സഹായിച്ചത് എൻ്റെ ഗ്രാമമാണ് എൻ്റെ ഗ്രാമത്തിലെ ഓരോരുത്തരുമാണ് അവിടെ ദെ മനോഹര ഗ്രമ് പ്രകൃതിരമണീയമാണ് എൻ്റെ നാട് പുഴകൾ കൊണ്ടും കുന്നുള്ള സ്ഥലമാണെങ്കിലും പാറകളാണേലും മറ്റുള്ള സ്ഥലത്ത് സിറ്റിയിലൊക്കെ താമസിക്കുന്നവര് ചോദിക്കും ഓ ഇവിടെ മുഴുവൻ പാറയാണല്ലോ ഇവിടെ മുഴുവൻ മരവാണല്ലോന്നൊക്കെയാണ് ചോദിക്കുന്നത് പക്ഷെ എന്തോ എനിക്ക് ഇഷ്ടമാണ് ഇവിടൊക്കെ പാറകളും മലകളും എല്ലാംതന്നെ എൻ്റെ കസിൻസായിട്ടുള്ള നല്ല നല്ല നിമിഷങ്ങളെല്ലാം ലഭിച്ചിരിക്കുന്നത് എനിക്ക് ഇവിടെ നിന്ന് തന്നെയാണ് എന്ത്കൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കതിന് ഉത്തരമില്ല കാരണം സ്നേഹത്താൽ നിറഞ്ഞ് നിൽക്കുന്നവരാണ് ഇവിടെയുള്ള ഓരോരുത്തരും വലിയ സിറ്റികളോ സൂപ്പർ മാർക്കെറ്റുകളോ മാളുകളോ ഒന്നുമെൻ്റെ ഗ്രാമത്തിലില്ല കുഞ്ഞുകുഞ്ഞു കടകളും മിട്ടായികളും ഒക്കെ ലഭിക്കുന്ന കടകളൊക്കെ മാത്രമുള്ളു പക്ഷെ ഞങ്ങൾക്കത് ധാരാളമാണ് എന്ത്കൊണ്ടും മറ്റുള്ളവരുടെ സിറ്റികളിലെ പൊലൂഷനോ അങ്ങനത്തെ പ്രശ്നങ്ങള് വണ്ടി തിരക്കുകളോ ഒന്നും തന്നെ ഇവിടെ ഇല്ല പക്ഷെ ഇവിടത്തെ സമൂഹം എന്തും എനിക്ക് വളരെ അധികം ഇഷ്ടവാണ് എൻ്റെ മാതാപിതാക്കളെ എന്നും ചേർത്ത് നിർത്താൻ ഞാനാഗ്രഹിക്കുന്നത് ഒന്ന്കൊണ്ട് തന്നെയാണ് ഈ ഗ്രാമം അവരുടെ ആ നിഷ്കളങ്കത ഓരോ മനുഷ്യരിലുമുള്ള നിഷ്കളങ്കത ആരുമത്ര ഹൈ ടെക്കോ മോഡേണായിട്ടുള്ള ആൾക്കാരല്ല ആരും പക്ഷെ അവരെന്നും എനിക്കൊരു കൂട്ടായി എൻ്റെ വളർച്ചയിൽ അവർക്കോരോരുത്തർക്കുമുള്ള പങ്ക് വളരെ വെലുതാണ് എന്ത്കൊണ്ടോ എന്ത്കൊണ്ടോ എന്താവശ്യം വന്നാലോ ഓടി എത്തുന്നവരാണ് അവരോരുത്തരും എൻ്റെ അയൽപക്കത്തൊരു ആൻറ്റി ഉണ്ട് ഞങ്ങളവരുവായിട്ട് മിണ്ടാതായിട്ട് രണ്ട് വർഷം ആകുന്നു പക്ഷെ എനിക്കൊരാവശ്യം വന്നാൽ അവരോടി എത്തുഎന്നും എൻ്റെ കാര്യത്തിൽ ഇടപെടുമെന്നും പൂർണവിശ്വാസം എനിക്കുണ്ട് കാരണം എൻ്റെ അമ്മയെ പോലെ തന്നെ ഞാൻ സ്നേഹിച്ചൊരാൻറ്റിയാണ് അവിടെ അടുത്തുള്ളത് അതിന് അപ്പുറത്ത് വേറൊരു ആൻറ്റി ഉണ്ട് ഞാൻ ട്യൂഷൻ പഠിച്ചുകൊണ്ടിരുന്നത് അവിടെയാണ് ചേച്ചിയൊക്കെ എനിക്ക് നൽകുന്ന സ്നേഹം എനിക്ക് വാക്കുകൾ കൊണ്ട് വർണിക്കാൻ കഴിയാത്തതാണ് എന്നെ അവരുടെ വീട്ടിലെ ഒര് അംഗത്തെപോലെ കണ്ട് അവരുടെ വീട്ടിലെ ഒരു ആളായി കണ്ട് എന്നെ അവര് സ്നേഹിക്കുന്നുണ്ട് അവരുടെ ആ സ്നേഹത്തിനെ എന്നും ഞാൻ പരിഗണിക്കുന്നതാണ് അവരുടെ സ്നേഹത്തിന് മുന്നിൽ ഇന്നും ഞാൻ കടപ്പാടുള്ളവൾ തന്നെയാണ്